ഞാനടുത്തിടെ ഒരു ഒരു ജോഡി വയർലെസ്സ് ഇയർ ബഡുകൾ ഓൺലൈനിൽ വാങ്ങുക ഉണ്ടായി ഓൺലൈനിൽ വീട്ടിൽ കൊണ്ട് വന്നെ ആൾ ഡെലിവറി ബോയ് നല്ലത് രീതിയിലുള്ള എന്താ പറയുക സേവനം തന്നെയാണ് കാഴ്ചവെച്ചത് എന്തായാലും ഞാനത് ഉപയോഗിക്കാൻ തുടങ്ങിയപ്പം മുതൽ അത് വളരെ നല്ലതായിട്ടെനിക്ക് തോന്നി കാരണം ഇത് എപ്പോഴും ഇയർ ബഡ്സ് ഉപയോഗിക്കുന്നത് അത്ര ശരിയല്ലെങ്കിൽ പോലും നമ്മൾ യാത്രകളിലും മറ്റും ഡ്രൈവിങ്ങിലും കാര്യത്തിലും പോകുമ്പോൾ ഡ്രൈവിങ്ങ് സമയത്തൊക്കെ നമുക്ക് ഇയർ ബഡ്സ് വളരെ വളരെ ഏറെ ഉപകാരപ്രദമാണ് കാരണം നമ്മുടെ മൊബൈൽ നോക്കാതെ തന്നെ അല്ലെങ്കിൽ മൊബൈലൊന്ന് ടെച്ച് ചെയ്ത് കോൾ അറ്റൻഡ് ചെയ്തതിന് ശേഷം നമുക്ക് സുഖമായിട്ട് നമ്മുടെ ഡ്രൈവിങ്ങിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ ഇതിൽ സംസാരിക്കുകയും കാര്യങ്ങൾ നമുക്ക് പറയുവാൻ എല്ലാം പറ്റും അപ്പോൾ ഏറെ കുറെ ഈ ഇയർ ബഡ്സ് നമുക്ക് ഡ്രൈവിങ്ങിൽ ഒരിക്കലും എന്താ പറയുക ശ്രദ്ധ മാറിപോവാതെ സംസാരിക്കാൻ പറ്റുന്നത് കൊണ്ട് ഇത് വളരെ ഏറെ ഉപകാരപ്രദമാണ് പിന്നെന്താന്ന് വെച്ചാൽ പണ്ടത് പണ്ടൊക്കെ ഇയർ ഫോണായിരുന്നു ഇയർ ഫോൺ നമ്മൾ കുത്തി അതിന്റെ കേബിൾ നീട്ടി പോക്കറ്റിലിട്ട് കൊണ്ട് നടക്കണം പിന്നെ ഒരു ഇതെല്ലാം വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു ഇപ്പോൾ അങ്ങനല്ല ഇടക്കിടക്ക് ചാർജ് ചെയ്യുക നേരെ എടുത്ത് ചെവിയിലോട്ടങ്ങ് ഫിറ്റ് ചെയ്യുക മതി കഴിഞ്ഞു കോൾ അറ്റൻഡ് ചെയ്യാനും ഇപ്പോളിത് വേണമെന്നില്ല മൊബൈലെടുക്കണമെന്ന് പോലുമില്ല അപ്പോൾ മൊബൈൽ കയ്യിൽ യൂസ് ചെയ്യാണ്ട് തന്നെ നമുക്ക് സംസാരിക്കാനും എല്ലാം പറ്റും അപ്പോൾ ഇത് പല അല്ലെങ്കിൽ ചില എന്താ പറയുന്നത് ഉത്സവപറമ്പുകളിലോ അല്ലെങ്കിൽ ആൾതിരക്കുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി ഇപ്പോൾ നമുക്കെന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ പലപ്പോഴും കേൾക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ അങ്ങനുള്ള സാഹചര്യങ്ങളെല്ലാം ഈ ഇയർ ബഡ്സ് വളരെയേറെ ഉപകാരപ്രദം തന്നെയാണ്